ലക്ഷ്മി അല്ലേ ഞങ്ങൾ മൂന്നാർ വഴി ഒരു വൺ ഡേ ടൂറ് പോകാൻ ഒരു ഓട്ടം വരാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഞാൻ എനിക്ക് മൂന്നാറാണ് പോവേണ്ടത് ലാസ്റ്റ് അവധിക്ക് ഞാനും എൻ്റെ കുടുംബവും മൂന്നാർ പോവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അവിടെ നല്ല തണുപ്പ് ഒക്കെ ഉണ്ടല്ലോ എത്ര ഡിഗ്രി തണുപ്പ് കാണും അവിടെ ഞങ്ങൾ കോട്ടയം ഉം ഞങ്ങളും ഉം ആ ഞങ്ങളും കുട്ടികളും ഒക്കെ കൂടെയാണ് വരുന്നത് തണുപ്പ് കൂടുതൽ ഉള്ളതിനാൽ സ്വെറ്റർ ഒക്കെ കൊണ്ടാണ് വരുന്നത് അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടാവുമോ

അതൊക്കെ തരാം അവിടെ സ്പെഷ്യൽ ആയിട്ട് കിട്ടുന്ന ഫുഡ്ഡ് ഒക്കെ എന്തൊക്കെയാണെന്ന് അറിയാമോ

ഞങ്ങൾ പന്ത്രണ്ടാം തീയ്യതി വരാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് ആ ആ ആ തേയില കാടുകൾ ഒക്കെ കൂടുതൽ ഉള്ള സ്ഥലം അല്ലേ അത് എനിക്ക് കുറച്ച് തേയില ഒക്കെ വേണമായിരുന്നു

ഒരു ദിവസം കൊണ്ട് എല്ലാ ഭാഗവും ചുറ്റി കറങ്ങാൻ പറ്റുകയില്ലായിരിക്കും അല്ലേ

ഡ്രസ്സ് ഒക്കെ വാങ്ങാൻ പറ്റുമോ ഡ്രസ്സിനൊക്കെ വിലക്കുറവുണ്ടോ

എന്നാൽ ശരി ലക്ഷ്മി ഇത്രയും ഇത് ഒക്കെ തന്നതിന് നന്ദി ഞങ്ങൾ പോവാൻ നേരം വിളിക്കുന്നതാണ് പന്ത്രണ്ടാം തീയ്യതി ഓക്കെ ബൈ